ഉൾനാടുകളിലും പട്ടണത്തിലൊക്കെയുള്ള കളികളിൽ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നമ്മൾ അതായത് നാട്ടിൻ പ്രദേശത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്ക് കളി സാറ്റ് കളി അങ്ങനെയുള്ള കളികളൊക്കെയാണ് കുട്ടികൾ കൂടുതലും കളിക്കുക പിന്നെ കളിക്കും കൊ കുറച്ച് വലിയവർ ഷട്ടിൽ കളിക്കും പിന്നെ ക്രിക്കറ്റ് പോലെ കളിക്കും അതായത് ഈ ടർഫിലൊക്കെ പോയിട്ട് ഫുട്ബോൾ അങ്ങനെയുള്ളതൊക്കെ കളിക്കും ഇപ്പോഴൊക്കെയാണ് ടർഫിലൊക്കെ പോയി കളിക്കാൻ തുടങ്ങിയത് പക്ഷേ കുറച്ച് ഒരു രണ്ട് വർഷം ഒക്കെ മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടർഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പം എല്ലാവരും പിന്നെ അതായത് പിന്നെ മഴയൊക്കെ വരുമ്പോൾ മഡ് ഫുട്ബോൾ അത് വയലിൽ നല്ല ചെളിയിൽ നിന്നിട്ട് മഡ് ഫുട്ബോൾ അങ്ങനെയൊക്കെ കളിക്കും പക്ഷേ അത് വെച്ചിട്ട് പട്ടണത്തിൽ വെച്ചു നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് അതായത് ടർഫ് അങ്ങനയുള്ള സംഭവത്തിലൊക്കെ അവർക്ക് മറിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും കളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അവർക്ക് അതിന്റേതായ അതായത് ബാഡ്മിന്റൺ ഷട്ടിൽ ഇവിടെ ഈ ഷട്ടിൽ ഒക്കെ കളിക്കും പക്ഷേ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഫഷണൽസ് കളിക്കുന്ന ഷട്ടിൽ ആയിരിക്കും അത് അത്യാവശ്യം വലയെല്ലാം കെട്ടി ഇങ്ങനെ സെറ്റപ്പിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തനി നാടൻ ഇതായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ബാറ്റ് ബാറ്റ് അടിക്കും അതാണ് പക്ഷേ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രൊഫഷണൽ കളിക്കുന്നത് പോലെയാണ് കുട്ടികളൊക്കെ കളിക്കുക